കേരളം വ്യവസായ മേഖലയിൽ പ്രാദേശിക തൊഴിൽ ശക്തിയെയും കഴിവുറ്റ വികസനത്തെയും ശക്തമായ പിന്തുണക്കുന്ന സംസ്ഥാനമാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള വ്യവസായങ്ങൾക്കു വേണ്ടി ആ വ്യവസായങ്ങളുടെ വളർച്ചക്ക് വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരുപാട് ചെറുകിട അതുപോലെതന്നെ വൻകിടമായിട്ടുള്ള വ്യവസായങ്ങൾ ഒരുപാട് രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതുപോലെയുള്ള കച്ചവടങ്ങളൊക്കെ അപ്പം ഒരുപാട് കുട്ടികൾക്ക് അതിലൂടെയൊക്കെ ജോലി കുട്ടികളെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഐ റ്റി മേഘലകൾ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നതു കൊണ്ട് തന്നെ അതുപോലെയുള്ള ഇൻഫോ പാർക്ക് അതുപോലെയുള്ള സംഭവങ്ങൾ അങ്ങനെ ഉള്ള സൗരഭ്യങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുണ്ട് പ്രാദേശികമായിട്ടുള്ള നമ്മുടെ കുട്ടികളാണ് അതിലേക്കൊക്കെ വിളിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് ജോലികൾ ഇപ്പം നമുക്ക് തന്നെയാണെങ്കിലും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ പഴയ പാരമ്പര്യമായിട്ടുള്ള നമ്മുടെ പഴയ പാരമ്പര്യമായിട്ടുള്ള ക്രാഫ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയേണ്ടെ അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ പുറത്തു നിന്നാണെങ്കിലും ആൾക്കാർ വന്നു നമ്മുടെ ഇതുപോലെയുള്ള നമ്മൾ ചെയ്യുന്ന ഒരുപാട് നമ്മളുടെ കഴിവുകൾ കൊണ്ടു നമ്മൾ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ അതെല്ലാം ഡിസ്പ്ലേ ചെയ്ത് അതെല്ലാം ആൾക്കാരെ കാണിച്ച് അവർക്ക് ഇഷ്ടപ്പെടുന്നത് അവർ വന്നു വാങ്ങിച്ചു കൊണ്ടു പോകുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതുപോലെ പല കാര്യങ്ങളിലും ചെറുകിടമായിട്ടുള്ള വ്യവസായങ്ങളെയും വൻകിട വ്യവസായങ്ങളെയും നമ്മുടെ കേരളവും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നമ്മുടെ നാട്ടുകാരും അതുപോലെ നമ്മുടെ നാട്ടിലാണെങ്കിലും നമ്മുടെ പ്രാദേശിക സ്ഥലങ്ങളിലും ഒക്കെ ഒരുപാട് രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്